ആ പറയൂ

ആ ആ എന്താ എന്തെങ്കിലും പുറത്ത് നിന്ന് കഴിച്ചിരുന്നോ

പനി എപ്പോഴാണ് തുടങ്ങിയത് ആ ആ ഡോക്ടറേ കാണിച്ചില്ലായിരുന്നോ ആ ആ നല്ല മരുന്ന് നല്ല പനി ഉണ്ട് ആ ആ പനി ഉള്ളപ്പോൾ ചൂട് വെള്ളത്തിലേ കുടിക്കാൻ കുളിക്കാൻ പാടുള്ളൂ

തല കുളിക്കേണ്ട ജലദോഷം ഉണ്ടോ ആ ആ വയറ്റിൽ നിന്ന് പോക്കിന് ഒ ആർ എസ് തരാം ആ അത് രണ്ടുനേരം കുടിക്കണം ആ പിന്നെ പനിക്കും ഗുളിക തരാം ആ പിന്നെ ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ആ ശ്വാസം മുട്ടൽ അങ്ങനത്തെ എങ്ങനത്തെയും ആ ആ തലകറക്കം അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അല്ലേ ആ ആ ചുമയും അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ആ ആ മരുന്ന് എഴുതാം പിന്നെ സ്കാനിങ്ങിന് ബ്ലഡ് സ്കാൻ ചെയ്യാം

വേറെയെന്തെങ്കിലും രോഗം ഉണ്ടോ

കണ്ണ് ചുവപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ തൊണ്ടവേദന അങ്ങനെ എന്തെങ്കിലും

ഇത് കുറെ ദിവസമായോ തുടങ്ങിയിട്ട് ആ വയറ്റിൽ നിന്ന് പോക്കൊക്കെയോ എന്തെങ്കിലും പുറത്ത് നിന്ന് കഴിച്ചിരുന്നോ വയറ്റിൽ നിന്ന് പോക്കിന്

ഉറപ്പല്ലേയെന്ന് ആ ആ അപ്പോൾ ഞാൻ മരുന്നെഴുതാം ആ മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വരണം ആ പിന്നെ അതേപോലെ ചൂട് വെള്ളത്തിലേ കുളിക്കാൻ പാടുള്ളൂ തല കഴുകേണ്ട

ആ ആ ആ എഴുതിയിടുന്നുണ്ട് ആ എഴുതി ആ ഫാർമസി പോയി വാങ്ങിയാൽ മതി

മരുന്ന് കിട്ടിയോ മരുന്ന് കിട്ടിയോ ആ ആ ഇപ്പം ഒരു ഗുളിക കഴിക്കാനുണ്ട് വയറിളക്കം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അത് കഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരിക ഗുളിക കുടിച്ചോ ഗുളിക കുടിച്ചോയെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നോ റിസൾട്ട് എപ്പം വരും എന്നാണ് പറഞ്ഞത്

എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരൂ കേട്ടോ